മലയാള ഭാഷ നമ്മുടെ മാതൃഭാഷ വളരെയേറെ കുറഞ്ഞ് വരുന്ന ഒരു കാലഘട്ടമാണിത് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ മലയാളം സംസാരിക്കുക പോലും ചെയ്യാൻ കഴിയാത്ത അവസ്ഥ വരെ ഉണ്ടാവുന്നുണ്ട് മലയാള നമ്മളെ മാതൃഭാഷയെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ചുമതലയാണ് അത് സ്കൂള് തലത്തിലും കുടുംബ തലത്തിലും വളരെയേറെ പ്രവർത്തനം നടപ്പിലാക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ മലയാളികൾ ധാരാളമാളുകൾ ഇവിടുന്ന് ഗൾഫ് നാടുകളിലും വിദേശ രാജ്യങ്ങളിലുമൊക്കെയുണ്ട് പക്ഷേ അവിടുത്തെ കുട്ടികൾക്ക് ഇവിടെ തിരിച്ച് വരുമ്പോൾ അവർക്ക് മലയാളം എഴുതുന്നതിന് പറയുന്ന മാതാപിതാക്കൾ പറയുന്നതുകൊണ്ട് പറയുമെന്നുള്ളതല്ലാതെ എഴുതാനൊന്നും പറ്റാത്ത ഒരു അവസ്ഥയുണ്ട് അത് മാറ്റി മാതാപിതാക്കൾ മലയാള ഭാഷയെ പ്രോത്സാഹിപ്പിക്കേണ്ടതും അത് പ്രാവർത്തികമാക്കുകയും ചെയ്യേണ്ട ഏറ്റവും വലിയ അത്യാവശ്യമായ കാര്യമാണ് നമ്മുടെ മാതൃഭാഷ അത് നമ്മളെ ഭാഷയാണ് അത് വളരെയേറെ കൈകാര്യം ചെയ്യേണ്ട വിഷയമാണ്